ഹലോ ഞാൻ എറണാകുളത്തു നിന്നാണ് ഇന്ന് വിളിക്കുന്നത് ഞാൻ ഇപ്പോൾ ആ ഞാൻ ഈ കേരളത്തിൽ എന്തൊക്കെ നല്ല ഫുഡ്ഡുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരുന്നു ആ എറണാകുളത്തെ എനിക്കറിയാം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നല്ല നല്ല നാടൻ ഫുഡ് എന്തൊക്കെയാണ് ഉണ്ടാവുക ഊണ് ഉണ്ട് ആ ഊണിന് കറികൾ എന്തൊക്കെയാണ് ഉള്ളത് ആ വെജിറ്റേറിയൻ ഫുഡ്ഡാണ് കുറച്ചൂകൂടി താൽപ്പര്യം പിന്നെ മീനും കുറച്ചൂകൂടി താൽപ്പര്യം ഉള്ളതല്ലേ ആ അമ്മോ ആ മീൻ ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് മീൻ മീൻ ഫിഷ്

ആ ഓക്കെ ഇതെവിടെയായിട്ടാണ് സ്ഥലം എവിടെയായിട്ടാണ് വയനാട് എവിടെ ആയിട്ടായിരുന്നു കുറുവ ദ്വീപിലാണോ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഒക്കെയുണ്ടോ ആ എത്ര പേർക്ക് താമസിക്കാം ഞങ്ങൾ കൊറച്ചു പേർ വരുന്നുണ്ടായിരുന്നു അപ്പം എത്ര പേർക്ക് താമസിക്കാനുള്ള സ്ഥലം വലിയവർക്ക് ആ ഡോർമെട്രി ഡോർമെട്രിയാണോ ആ ഓക്കെ ഓക്കെ ആ അഞ്ച് പേർക്കല്ലേ ഒരു റൂമിൽ ആ ഫുഡ് നമുക്ക് റൂമിൽ കൊണ്ടുത്തരുമോ ആ ഞങ്ങൾ കുറച്ച് ലാർജ് ഓർഡറുണ്ട് കുഴപ്പം ഒന്നുമില്ലല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും

ആ ആ ആ നമ്മൾക്ക് ഇപ്പോൾ അവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെതന്നെ വണ്ടിയുണ്ടോ അതോ വേറെ ഏതെങ്കിലും വണ്ടി ആക്കിത്തരുമോ

ആ ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ ഊണിന് എത്ര രൂപയാണ് ഇതിനു പേയ് ചെയ്യുന്നത് നൂറ് രൂപയാണ് അല്ലേ അതിനനുസരിച്ച് വരും അല്ലേ ആ ആ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ ആ ഓക്കെ ഉണ്ടാക്കിത്തരും അല്ലേ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് പോരും ഞങ്ങൾ അവിടെയെത്തിയിട്ട് ഈവെനിംഗ് വന്നാൽ മതിയോ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു